കേരളം സന്ദർശിക്കുന്ന സമയത്ത് പുറത്തുള്ള വിനോദ സഞ്ചാരികളൊക്കെ അവരൊക്കെ ആസ്വദിക്കുന്നത് എന്നു വെച്ചാൽ കേരളത്തിനെ എന്താണ് തനി അക്കാലത്തിനെ അതിൻ്റെതായ ഒരു നാട്ടു കലാരൂപങ്ങള് തെയ്യം പിന്നെ അങ്ങനെത്തെ ഒരുപാട് പ്രാദേശികമായിട്ടുള്ള കലാരൂപങ്ങളൊക്കെ കേരളത്തില് ഉണ്ട് അതൊക്കെ വിനോദ സഞ്ചാരികൾക്ക് പരീക്ഷിക്കാവുന്ന വിനോദ രൂപങ്ങളാണ് പിന്നെ മാർഗം കളി തെരുവ് നാടകങ്ങള് പിന്നെ എന്താണ് തെയ്യത്തിനു തന്നെ പല വേർഷൻസ് ഉണ്ട് പിന്നെ കൂത്തുകളി ചാക്യാർ കൂത്ത് മോഹിനിയാട്ടം കഥകളി അങ്ങനത്തെയൊക്കെ കേരളത്തിന്റേതായിട്ടുള്ള വിനോദ എന്താ പറയുക രൂപങ്ങളാണ്